ഹലോ ആ ജൂനിയർ റെൻ്റൽ കമ്പനി അല്ലേ ആ എൻ്റെ പേര് ഗിരിഷ ഞാൻ മൈസൂരിൽ നിന്ന് വരുകയാണേ എനിക്ക് മറ്റന്നാളത്തേക്ക് ഒരു രണ്ടു ടി വി എസ് റെൻറ്റിന് വേണമായിരുന്നു ഒരു സ്കൂട്ടറും ഒരു ബൈക്കും

എവിടെയാണ് ലൊക്കേഷൻ നിങ്ങളുടെ കോഴിക്കോടാണോ ആ ഞാൻ ട്രെയിനിനാണ് വരുന്നത് ഒരു പത്ത് മണിയാവുമ്പത്തേനും അവിടെ എത്തും കോഴിക്കോടെത്തും അപ്പോൾ നിങ്ങളവിടെനിന്ന് കൊണ്ടുവന്നുതരുമോ വണ്ടി അവിടേക്ക് എത്തിക്കുമോ അതോ ഞങ്ങളവിടെ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് എടുക്കണോ

ഓക്കെ ആ നിങ്ങളുടെ കൈയ്യിൽ തരണോ അതോ നമ്മൾ കോപ്പി ആയി തന്നാൽ മതിയോ ഓക്കെ ആ ഇപ്പം ആ ഓക്കെ അപ്പോൾ എത്രയാണ് റെന്റ് വരുന്നത് ഓക്കെ ആ എത്ര വരും പെർ ഡേ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അഡ്വാൻസ് ഇപ്പം അയക്കേണ്ടിവരുവോ തരേണ്ടിവരുവോ ആ ഫുൾ പെയ്മെൻ്റ് ചെയ്തിട്ടാണൊ ഞങ്ങൾക്ക് വണ്ടി തരുക ഓക്കെ ഓക്കെ രണ്ടു ദിവസത്തേക്ക് ആ ഓക്കെ താങ്ക് യൂ ഓ ആയിക്കോട്ടെ താങ്ക് യൂ